ഞങ്ങളുടെ നാട്ടിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏത് നാട്ടിൽ നിന്ന് ആളുകൾ വന്നാലും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നതു പോലെയുള്ള നല്ല നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഈ യാത്ര എന്ന് പറയുമ്പം യാത്ര ചെയ്യാൻ നല്ല വഴികളാണ് നല്ല റോഡുകളാണ് പിന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ആവിശ്യത്തിന് ഉണ്ട് അത് കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ നല്ലതാണ് പക്ഷെ ഇപ്പോൾ ആവിശ്യത്തിന് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒക്കെ ഉണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കൂടുതൽ മലനിരകളും പച്ചപ്പും പാറക്കെട്ടുകളും അങ്ങനെ ഒക്കെയുള്ള മുന്തിരി തോട്ടങ്ങളും ഒക്കെയുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് പിന്നെ യാത്രകൾ യാത്രകൾ പോകുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ആസ്വദിക്കുന്നവർക്ക് ആണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്